ഹലോ ട്രാവൽ ഏജൻസി അല്ലേ ഞാനിന്ന് മോർണിംഗ് ഒരു എന്താ പറയുക ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞങ്ങക്കൊന്ന് എന്താ കോഴിക്കോട്ന്ന് ഞങ്ങക്കൊന്ന് തിരുവനന്തപുരം വരെ പോകാനാണ് ഒരു കല്യാണ ഫംഗ്ഷനാണ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുക വിനോദയാത്ര ഉണ്ട് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ പത്ത് മണി ആകുമ്പോഴേക്കും വരാന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ സമയം ഇത്രയായി ഇതേ വരെ ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നുന്നില്ല ഫോൺ ഞാൻ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തു ആ കോള് റിംഗ് ചെയ്യുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല പിക്ക് ചെയ്യുന്നില്ല പിന്നെ ഒരു പ്രാവശ്യം ബിസി ആക്കിയായിരുന്നു ആ ഞങ്ങള് എല്ലാവരും ഒരുങ്ങി ബാഗ് ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത് പുറത്ത് നിൽക്കുകയാണ് ഇപ്പം എന്താ ചെയ്യുക ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു അതാ ഞാൻ നിങ്ങളെ വിളിച്ചു നോക്കിയത് ആ ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാരുന്നു എമൗണ്ടും സെറ്റ് ആക്കിയതാണ് എല്ലാം പറഞ്ഞതാണ് ഞാൻ ഇപ്പം കുറെ നേരമായി ഇപ്പം എന്താ പറയുക ഇവരൊക്കെ ടെൻഷനടിച്ച് എന്താ പറയുക വേറെ വണ്ടി വിളിക്കണോന്നൊക്കെ ചോദിച്ചു നിൽക്കുവാണ് ആ നിങ്ങളൊന്ന് ചോദിച്ചിട്ട് ആ ഒന്ന് വേഗം വിളിക്കുമോ ആ ഒക്കെ